യുവജനങ്ങൾ കായികരംഗത്ത് എന്തോച്ച് വെച്ചാൽ എല്ലാവരും കായിക രംഗത്ത് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് പക്ഷെ കായികരംഗത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം വളരെ കുറവാണ് പ്രത്യേകിച്ച് കേരളസം കേരളത്തെ സംബന്ധിച്ച് ഒരു നൂറ് പേരെടുത്തുകഴിഞ്ഞാൽ നൂറു പേരെ നമ്മൾ കണക്കാക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടു പേരെ കായിക രംഗത്തിലൂടെ എന്താ നല്ല രീതിയിൽ മിക മികച്ച രീതിയിൽ സ്ഥാനത്തേക്കെത്താൻ കഴിയുകയുള്ളു കാരണം ഇന്ന് കാരണം ഒരൂപാട് പേർ ഈയൊരു മേഖലക്ക് വരുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒരു സാദ്ധ്യതകളിതിൽ കുറവാണ് കാരണം നമ്മുടെ ഇന്ത്യേനെ വെച്ചു നോക്കുമ്പം ഇപ്പോൾ ഇന്ത്യക്കൊരു ക്രിക്കറ്റീമുണ്ടെങ്കിൽ ആ ക്രിക്കറ്റീമിലൊരു മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു മുപ്പതാളെ നമ്മളെടുക്കുകയുള്ളൂ അതായത് ഈ മുപ്പതാളെ എടുക്കാണെങ്കിൽ നമ്മളുടെ മൊത്തം നമ്മുടെ രാജ്യത്തു നിന്നാണീ മുപ്പതാളെ സെലക്റ്റ് ചെയ്യുന്നത് ഈയൊരു മുപ്പതാളെ സെലക്റ്റ് ചെയ്യുമ്പത്തന്നൈന് പൊളിറ്റിക്കലീ ആൻഡ് മതപരമായിട്ടും പല ഇന്ഫ്ലുവെന്സിങ്ങും സാമ്പത്തികമായിട്ടൊക്കെയുള്ള ആള്ക്കാരെ ഇന്ഫ്ലുവെന്സിങ്ങൊക്കെ വന്ന് അങ്ങനത്തൊരു രീതിയിലാണ് അതിലേക്കുള്ള സെലക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഏ അതു കൊണ്ടു തന്നെ കായിക രംഗത്തേക്ക് തന്റെ മക്കൾ പോകുമ്പം രക്ഷിതാക്കള്ക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഒരു ഉദാഹരണം പറയാണെങ്കിലിപ്പം നമ്മുടെ കേരളത്തിൽ നിന്നു തന്നെ എത്രപേർ കായികമേഘലയിൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നു നമുക്ക് നോക്ക് വള അതിൽ പെട്ടതു കൊണ്ട് അതു കൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം അം പുതിയ പുതിയ ആക്കാദമികളും നമ്മളുടെ കായിക രംഗം മന്ത്രിമാരും എല്ലാവരും ഒന്നുത്സാഹിച്ചാല് വളരെ മെച്ചപ്പെട്ട രീതിയിലാകും എന്നു തന്നെയാണ് വിശ്വാസം